അങ്ങനെ മത്സ്യബന്ധന യാത്രക്ക് ഒന്നും പോയിട്ടില്ല പിന്നെ നമ്മുടെ തോട്ടിൽ ഒക്കെ മീൻ പിടിക്കാൻ പോയിട്ടുണ്ട് അപ്പം പിന്നെ അല്ലാതെ പുഴയിൽ പോയിട്ട് കായലിൽ പോയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കടലിൽ പോയിട്ടൊന്നും മീൻ പിടിച്ചിട്ടില്ല വിടില്ല അങ്ങനെ വീട്ടിനൊന്നും നമ്മള് തോട്ടിൽ ഒക്കെ പോയിട്ട് മീൻ പിടിച്ചിട്ടുണ്ട് തോട്ടിൽ പോയി മീൻ പിടിക്കുമ്പോൾ എന്ന് വെച്ചാൽ ബക്കറ്റ് തോർത്ത് പിന്നെ കപ്പ് ഇതൊക്കെ എടുക്കും എന്നിട്ട് തോർത്ത് രണ്ട് സൈഡിലും പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ അരിച്ചെടുക്കില്ലേ അങ്ങനെയാണ് മീൻ പിടിക്കുക പിന്നെ അതും പറ്റില്ല നമ്മൾ കുറച്ച് കൂടെ കുറച്ചു കൂടെ ഗ്രാൻഡ് ആക്കിയാണെങ്കില് നമ്മള് പിന്നെ ഈ മണ്ണിരയില്ലെ എർത്ത് വാം അത് പിന്നെ ചൂണ്ടയിൽ കുടുക്കി ഇട്ടിട്ട് ഇങ്ങനെ ഇടും ചിലപ്പോൾ കൊത്തും ചിലപ്പോൾ കൊത്തില്ല എന്നിട്ട് ഇലയിൽ ഇങ്ങനെ കെട്ടി വെക്കും ഇങ്ങനെ കെട്ടി വെക്കുമ്പോൾ അത് ഇങ്ങനെ തട്ടുമ്പോൾ ഇങ്ങനെ വലിയും അപ്പോൾ അതിൽ നിന്ന് പിടിക്കും അങ്ങനെ ചെയ്യാണ് ചെയ്യാറ് അല്ലാതെ അതിന് അതിന് വേണ്ടിട്ട് പ്രത്യേകം ആയിട്ട് നമ്മള് വലിയ തയ്യാറെടുപ്പും ഒന്നും ചെയ്യാറില്ല